എനിക്ക് ഹൈക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള സ്ഥലമെന്ന് മഞ്ഞ് പർവ്വതങ്ങൾ തന്നെയാണ് കാരണം അവിടെയാണ് അതിൻ്റെ മെയിൻ മെയിൻ ഉള്ളത് മെയിൻ ആയിട്ട് ഇരിക്കുന്ന സ്ഥലമാണ് മഞ്ഞ് പർവ്വതങ്ങൾ അവിടുത്തെ ഓരോ അഡ്വെഞ്ചറുകളും ഓഫ് റോഡുകളും ഓഫ് റോഡിന്ന് മലനിരയിലോട്ടും ഓഫ് റോഡിൽ കൂടി തന്നെയാണ് പൊന്തി താഴ്ന്നത് സ്ഥലമായ കറക്റ്റ് പറ്റിയ ഇതിന് പറ്റിയ സ്ഥലം പറഞ്ഞാൽ ഈ മഞ്ഞ് പർവ്വതങ്ങൾ തന്നെയാണ് അവിടുന്ന് കുറേ ചാടുന്നതും ഇതൊക്കെ ഒന്ന് ഏറ്റവും നല്ല അടിപൊളി ആയിട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് മഞ്ഞ് പർവ്വതം അതുകൊണ്ട് തന്നെയാണ് എനിക്കവിടെ ഏറ്റവും ഇഷ്ടമുള്ളത് പിന്നെ ഞാൻ ഒന്ന് രണ്ട് വട്ടം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കാശ്മീരാണ് കാശ്മീരിലാണുള്ളത് ഒന്ന് രണ്ട് വട്ടം അവിടെ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ മഞ്ഞ് പർവ്വതം മഞ്ഞ് സ്ഥലം എന്ന് പറഞ്ഞത് കാശ്മീരിലൊക്കെയാണ് ഇത് മെയിൻ ആയിട്ടുള്ളത് കയ്യിൽ ഇങ്ങനെ രണ്ട് വടികൾ ഉപയോഗിച്ചിങ്ങനെ പോവുന്നത് കാണാൻ പ്രത്യേക രസം തന്നെയാണ് പിന്നെ സൂര്യാസ്തമനമാർന്ന ബീച്ച് ബീച്ചിൽ നിന്നാണ് സൂര്യാസ്തമനം കാണാൻ ഏറ്റവും എനിക്കിഷ്ടം ബീച്ചിൽ നിന്ന് അസ്തമിക്കുന്ന ടൈമിൽ സൂര്യൻ കടലിലേക്കിങ്ങനെ ഇറങ്ങി പോവുന്നത് അത് കണ്ട് നമുക്ക് മതി വരില്ല എത്ര കണ്ടാലും നമുക്ക് മടുക്കില്ല അത് പിന്നെ ആകാശം മൊത്തം ഒരു മഞ്ഞ കളർ ആയി പെട്ട് മഞ്ഞ കളർ ആയി നിൽക്കുമ്പോൾ അങ്ങനെ ഇരുട്ടിലേക്ക് പോവുന്നതും അത് കണ്ടാലും കണ്ടാലും നമുക്ക് മതിയാവില്ല ബീച്ചിൽ നിന്ന് കയറുമ്പോൾ ഒരു കടല ഒക്കെ കയ്യിൽ വാങ്ങി വെച്ചാൽ മതി ഒരു കടലപ്പൊതി കയ്യിൽ വാങ്ങിച്ച് അങ്ങനെ അത് അതും കഴിച്ച് കൊണ്ടിങ്ങനെ അസ്തമയം കാണുന്നത് അത് വേറെ ഒരു ഫീൽ തന്നെയാണ് സൂര്യൻ്റെ ഓറഞ്ച് കളർ ആയി കത്തി നിൽക്കുന്ന സൂര്യൻ ഇങ്ങനെ അടിയിലേക്ക് ഇറങ്ങി പോകുന്നത് ഒരു പ്രത്യേക രസം പറഞ്ഞറിയിക്കാനാകാത്ത ഫീലിങ്ങ് ആണ് അതിൽ ഉള്ളത് കുറേ ആൾക്കാർ ഉണ്ട് അത് കാണാൻ ബീച്ചിൽ നിന്നാണിത് കാണാൻ എന്ത് രസം മലയിൽ നിന്ന് കാണാട്ടി ഒന്നും കൂടി രസം ബീച്ചിൽ നിന്ന് കാണുന്നതാണ് ആണ് പിന്നെ ഇതിനായിട്ട് കുറേ ആൾക്കാർ അസ്തമയം കാണാനായിട്ട് കുറേ ആൾക്കാർ ബീച്ചിലേക്ക് വരുന്നുണ്ട് ടൂറിസ്റ്റുകൾ ആവട്ടെ എത്ര എത്ര ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കോഴിക്കോട് ബീച്ചിൽ പോയാൽ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാം അവിടെ ഇരുന്നിട്ട് ആസ്വദിക്കാൻ പറ്റിയ കാര്യമാണ് നമ്മൾ എല്ലാം മറന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ് ഈ അസ്തമയമെന്ന് പറയുന്നത്